ചിത്രരചനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി വെല്ലിവിളി നിറഞ്ഞ വശം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെച്ചിട്ടുണ്ടെങ്കില് നല്ലോണൊരു ചിത്രം വരയ്ക്കുന്നൊരു ചിത്രകാരൻ ആണെങ്കില് ഏറ്റവും വെല്ലുവിളി നേരിടുന്നൊരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കി അവൻ പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റേജായിരിക്കും കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ പല മത്സരങ്ങള് കാര്യങ്ങൾക്കൊക്കെ പോകുമല്ലോ പൊതുവേ അതായത് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ എങ്ങനെയാണെങ്കിലും പൊതുവേ എന്തെങ്കിലും മത്സരങ്ങള് കാര്യങ്ങൾക്കൊക്കെ പോകും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സരങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പിന്നെ മറ്റ് മത്സരാർത്ഥികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും നല്ലോണം വരയ്ക്കുന്നവരായിരിക്കും ചിലപ്പം നമ്മളത്ര വരയ്ക്കില്ല ചിലപ്പം നമ്മള് അതേ ഒരു ലെവലില് നിൽക്കുന്നവരായിരിക്കും അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിന് അവിടെ അങ്ങനൊരു സ്റ്റേജില് പോകുമ്പം നമ്മുടെ മെയിൻ വെല്ലുവിളി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവരെ മറികടന്നിട്ട് വേണം അതായത് അവരേക്കാളും നമ്മള് ഒരുപടി മുന്നില് എപ്പഴും നിൽക്കാൻ ശ്രമിക്കണം കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവര് വരയ്ക്കുന്നതിനേക്കാളും നല്ല രീതിയില് നമ്മള് മൈൻഡ് വർക്ക് ചെയ്യണം അപ്പോൾ എന്നിട്ട് വേണം നമ്മള് ചിത്രം വരയ്ക്കാൻ തുടങ്ങാൻ അങ്ങനെയാകുമ്പോൾ നമുക്ക് ജയിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് അതാണ് മെയിനായിട്ട് ചിത്രം വരക്കാർക്കുള്ള വെല്ലുവിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവര് നേരിടുന്ന മത്സരങ്ങളാണ്